ഹലോ ആ

ആ ചോദിച്ചോളൂ മേഡം എന്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ലോൺ ആണ് എടുക്കുന്നത് ആ ഓക്കെ അപ്പോൾ വീടിനുള്ള ലോൺ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും പാസ് ആയത് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ ആ ഓക്കെ ഓക്കെ സ്വന്തമായിട്ട് എടുക്കാനാണല്ലേ ആ മേഡത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും പിന്നെ വരുമാന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊണ്ടുവന്നാൽ മതി ആ അത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ എത്ര രൂപ വരെ പാസ് ആവുമെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം ആ സ്ഥലത്തിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം ഈട് നമുക്ക് എന്തൊക്കെ പ്രൂഫുകൾ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എത്ര എമൗണ്ട് കിട്ടും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പം മാഡം എന്നത്തേക്കാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാങ്കിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും മേഡം കറക്റ്റ് സ്ഥലം എവിടെയാണ് ആ നാലാം മൈൽ ഓക്കെ പേരെന്തായിരുന്നു ആ ഓക്കെ മേഡം എന്നത്തേക്കാണ് മാഡത്തിന് ഒന്ന് ബാങ്കിലേക്ക് വരാൻ പറ്റുക നാളെ വരാം അല്ലേ ഓക്കെ അപ്പം നാളെ മേഡം മേഡത്തിൻ്റെ പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബാങ്കിലേക്കൊന്ന് വരുവാണെങ്കിൽ ഞങ്ങൾ ലോണിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാം എന്നിട്ട് മാഡത്തിന് എത്ര രൂപ ലോൺ കിട്ടുമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പറയാൻ പറ്റുള്ളൂ മേഡത്തിന് എത്ര ലക്ഷമാണിപ്പോൾ വീടിൻ്റെ ആവശ്യത്തിനായിട്ട് വേണ്ടത് അഞ്ച് ലക്ഷമാണല്ലേ ഓക്കെ അപ്പം പ്രൂഫും കാര്യങ്ങളും ആയിട്ട് വന്നാൽ മതി നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് എത്ര രൂപ വരെ പാസ് ആവും ആയി കിട്ടുമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം ആ ഓക്കെ മേഡം അപ്പോൾ എന്താണ് ആവശ്യം നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുത്തോളൂ പിന്നെ വല്ല ഗോൾഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് വേറെ പേയ്മെൻറ്റ് അഡീഷണൽ ചെയ്യാൻ പറ്റും ആ അപ്പം മേഡം അങ്ങനെ ആണെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ആ ആ ആ അപ്പോൾ നോക്കിയിട്ട് മാഡം ഗോൾഡിൻ്റെ എന്താണെന്ന് സ്കീം എന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും മാഡം എന്തായാലും നാളെയൊന്ന് ബാങ്കിലേക്ക് വന്നാൽ മതി വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചിട്ട് വരണം കേട്ടോ ആ ഓക്കെ ഓക്കെ